വളർത്തുമൃഗങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്റെ വീട്ടിൽ പശുക്കളുണ്ട് പട്ടികളും കോഴികളും ഉണ്ട് അവയെ വളർത്തുന്നതും സ്നേഹിക്കുന്നതും അവയുടെ കളികളും സ്നേഹപ്രകടനങ്ങളും കാണുന്നതും ഒരു സുഖമുള്ള കാഴ്ചയായതുകൊണ്ടാണ് പശുക്കളെ വളർത്തുന്നത് പ്രധാനമായും പാൽ എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് പാൽ കുടിക്കുന്നതിലൂടെ രോഗ പ്രതിരോധശേഷി നേടുകയും പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്നു പട്ടികളെ വളർത്തുന്നത് പ്രധാനമായും വീടിന്റെ കാവലിനു വേണ്ടിയിട്ടാണ് പട്ടി ശരിക്കും ഒരു കാവൽ നായയാണ് വീടിന് കാവലും സുരക്ഷിതത്ത്വവും നല്കുന്നുണ്ട് കോഴികളെ വളർത്തുന്നത് കൂടുതലും മുട്ടക്ക് വേണ്ടിയും അവയുടെ മാംസത്തിന് വേണ്ടിയുമാണ് എനിക്കിവയെ വളർത്തുന്നത് ഒരു ക്രെയ്സ് ആണ് എന്റെ വീട്ടിൽ ഉള്ളതിനെക്കാളും അധികമായി എനിക്ക് ആടുകളെയും താറാവുകളെയും കിളികളെയും വളർത്തണമെന്ന ആഗ്രഹമുണ്ട് അതിനായി ഞാൻ ശ്രമിക്കുന്നുമുണ്ട്